ഞാൻ കു എന്താ പറയുക യൂട്യൂബ് ചാനലിൽ പലരീതിയിലുള്ള കുക്കിംഗ് ഷോസുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു പുള്ളിയുണ്ട് അതായത് നല്ല രീതിയിലുള്ള ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന പല ആൾക്കാരുണ്ട് ഇപ്പോൾ കാനഡയിൽ ഉള്ള ഒരു പുള്ളിയുണ്ട് അയാൾക്ക് യു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെയുണ്ട് അയാൾ കൂടുതൽ ആയിട്ടും ഈ മത്സ്യം അങ്ങനത്തെ അതായത് മത്സ്യം മാംസം അങ്ങനത്തെ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വെക്കുന്നത് പിന്നെ ഒരു നമ്മളൊരു പുള്ളിയുണ്ട് അയാളും നല്ല രീതിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കുടുതലായിട്ടും കാണുന്നത് കാരണമെന്തെന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്കവരുടെ ഭക്ഷണ രീതികളും അവരുണ്ടാക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അപ്പോൾ അവരെന്ന് വെച്ചുകഴിഞ്ഞാൽ കുടുതലായിട്ടും ബാൾക്കായിട്ടുണ്ടാകും കാരണം കുറെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് പ്പോ അതിലെ പോകുന്ന കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ ഉള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് അത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു ശൈലി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് ഞാൻ കുടുതലായിട്ട് നോൺ വെജ് വിഭാഗത്തിൽ പെട്ടതാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്